സ്ത്രീധനം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരൂ കാലഘട്ടത്തിൽ സ്ത്രീധനം പൊതുവെ കുറവാണ് എന്നാലും വാങ്ങുന്നെരികളൊക്കൊണ്ട് പൊതുവെ ഞാനൊക്കെ ഈ സ്ത്രീധനത്തിന് എതിരാണ് അങ്ങനെ നോക്കുമ്പം നമ്മൾ ആ നാട്ടിലും നമ്മളെ ചുറ്റുവട്ടത്തൊന്നും അധികം സ്ത്രീധനം കൊടുക്കുന്നവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പൊതുവേ കുറവാണ് പണ്ടത്തെ കാലത്തൊക്കെ സ്ത്രീധനം ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ എൻ്റെ ഉമ്മേൻ്റെ കാലത്തൊക്കെ സ്ത്രീധനം ഉണ്ടായിരുന്നു ആ ടൈമിലൊക്കെ സ്ത്രീധനം ചോദിച്ച് വാങ്ങിയതൊക്കെ ഉമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരുപാട് അന്നത്തെ കാലത്തൊക്കെ പുരുഷന്മാർ കല്യാണം കഴിക്കാൻ വരുമ്പോൾ ആദ്യം സ്ത്രീധനം ചോദിച്ച് ഉറപ്പിച്ച് ഒരു കച്ചവടം പോലെ ആയിരുന്നു ഇത് നമ്മൾക്ക് തന്നെ പരിഹാസം തോന്നും അത് കേൾക്കുമ്പോൾ എന്താണ് പറയുക പിന്നെ ഇപ്പോഴത്തൊരു കാലത്ത് പറയുകയാണെങ്കിൽ ആദ്യം വരൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഒരു മുട്ടായി കൊടുക്കൽ എന്ന് പോലെ ഒരു സംഭവമുണ്ട് അപ്പം ഒരുപാട് സ്വീറ്റ്സ്സ് ചോക്കളേറ്റ്സ് ഒക്കെ കൊണ്ട് വന്ന് കൊടുക്കും ഐല് ഐഫോണ് വധുവിന് ഐഫോൺ അങ്ങനെ ഐഫോൺ ആണല്ലോ ട്രെൻഡിങ് ഐഫോൺ ഉണ്ടാവും അതേപോലെ ആ ഒരു ദിവസം ഒരൂ ഒരു കൂട്ട് വസ്ത്രം ഷൂവ് അങ്ങനെ അടങ്ങി എല്ലാ ഇത് ഇതുമടങ്ങിയ ഒരു കൂട്ട് ഉണ്ടാവും പിന്നെ പിന്നെ അതൊക്കെ തന്നെ ഒരു റിങ് ഉണ്ടാവും മോതിരമുണ്ടാവും പിന്നെ കല്യാണത്തിന് മുസ്ലിംസിൻ്റെ ഒരൂ ഇത് ക്യാറ്റഗറിയിലാണെങ്കിൽ ഒരു ഇതുണ്ടാവും മഹർ എന്ന് പറഞ്ഞിട്ടൊരു സ്വർണ്ണം അതേ പോലെ ഹിന്ദൂസിൻ്റെ ആണെങ്കിൽ താലി ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കി ൽ ഒരു മാലയുണ്ടാവും അങ്ങനെ അതേപോലെ പിന്നെ വിവാഹ വേളകളിലാണെങ്കിൽ ഫ്രെണ്ട്സ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഫോട്ടോ ഫ്രെയിമ് ചെയ്തതും അങ്ങനെ വ്യത്യസ്തമായ ഗിപ്റ്റുകളുണ്ട് അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഇത് അല്ലാതെ വേറേ ഏതൊന്നും അറിയുന്നത് ആയിട്ടില്ല